ജീ ആളുകളുടെ ജീവിത നിലവാരത്തെ മൊത്തമായിട്ടും നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കളികളെക്കൊണ്ട് ഭയങ്കരമായ രീതിയിൽ പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു കളി ഇഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതവരുടെ ജീവിത നിലവാരത്തെ തന്നെ മാറ്റും ഇപ്പോൾ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും എൻ്റവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അപ്പം രാവിലെ നേരത്തെ എണീച്ചാലാണ് കളിക്കാൻ പോകാൻ പറ്റുക രാവിലെ നേരത്തെ എണീക്കുന്നത് നമുക്ക് ലൈഫിൽ അതായത് ജീവിതത്തിൽ നല്ല കുറേയധികം

പിന്നെ ജീവിത നിലവാരം കൂടുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനനുസരിച്ച് ഇപ്പോൾ കളിക്ക് വേണ്ടി കുറച്ച് ആത്മാർത്ഥത ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളിച്ച് അത്യാവശ്യം ലീഗ് മാച്ച് കളിച്ച് കഴിഞ്ഞാൽ ഇവിടെ കളിക്കാനൊക്കെ പോയിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ വേറെയുണ്ട് അപ്പം അങ്ങനെ അപ്പം ഓരോ രീതിയിൽ ഇപ്പം ഫുട് ബോൾ ആണെങ്കിലും ഏത് രീതിയിൽ ഏത് കളിയാണെങ്കിലും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മളെന്ത് കുറച്ച് സമയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നല്ലതായിട്ട് കുറേ കാര്യങ്ങൾ സംഭവിക്കും